ഹലോ പറയൂ അതെ എന്തായിരുന്നു സാർ വിളിച്ചത് എങ്ങനെ ഹോണ്ട സിവിക്കാണെന്ന് കൺഫേം ആണല്ലേ ആ ഓക്കെ അത് സാറിന് ഏതായിരുന്നു കളർ ഏതായിരുന്നു ഇവിടെയിപ്പോള് ഗ്രീനുണ്ട് ബ്ലൂവുണ്ട് വൈറ്റുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ ബ്രൗണ് അതില് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് അതുപോലെ ബ്രൗണ് വരുന്നുണ്ട് ഈ നാല് കളറുകളാണ് അതിലുള്ളത് ആ ഓക്കെ അപ്പോള് സാര് എങ്ങനെയാണ് നേരിട്ട് ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കില് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം ഇന്നെപ്പോഴാണ് വരാൻ പറ്റുക സാറിന് എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചാല് അപ്പോള് പറയൂ ഞങ്ങള് ഷോപ്പ് ക്ലോസ് ചെയ്യാന് ഏകദേശം അഞ്ച് മണിയാകും ഈവനിംഗ് ഫൈവ് തേർട്ടിക്ക് നമ്മള് ക്ലോസ് ചെയ്യും ആ ഓക്കെ ഹൊണ്ട സിവിക്ക് ഏകദേശം നമുക്ക് പതിനഞ്ച് മൈലേജ് വരുന്നുണ്ട് പതിനഞ്ച് കിലോമീറ്റർ പെർ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങള് സാറിന് അറിയാമല്ലോ റോഡ് പ്രൈസ് ഏകദേശം നമുക്ക് ടെൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ജി എസ് ടി ഇൻഷുറൻസ് നമ്മള് ഇപ്പോള് പുതിയ നിയമം പ്രകാരം നമുക്ക് എന്താണ് നമുക്ക് നമ്പർ പ്ലേറ്റ് അടക്കമായിരിക്കും അതുകൊണ്ട് വണ്ടി കിട്ടാനൊരു കുറച്ച് കുറച്ച് താമസം എടുക്കുമായിരിക്കും സാറിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഡീറ്റെയിൽസും എടുത്ത് തരാമെന്നുണ്ടെങ്കില് നമുക്ക് പേപ്പർ വർക്കുകൾ പെട്ടെന്ന് തന്നെ ക്ലിയറാക്കാം

ഇത് കൂടുതലൊന്നും സമയമെടുക്കില്ല ഏകദേശം ഒരു രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ച എടക്കും നമുക്ക് പെട്ടെന്നുതന്നെ ഫാസ്റ്റാക്കാന് നോക്കാം ആ വേറെ കൂടുതല് എന്തെങ്കിലും അറിയണോ ഇപ്പോള് നമുക്കിപ്പോള് സിവിക്കില് അവൈലബിൾ ആയിട്ടുള്ളത് ഡീസലാണ് പിന്നെ ഹൈബ്രിഡ് മറ്റ് വണ്ടികളൊക്കെ അവൈലബിളാണ് ഹൈബ്രിഡ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് പെട്രോളിൻ്റെ വണ്ടികളുണ്ട് പക്ഷേ സിവിക്ക് നമുക്കിപ്പോള് ഡീസലിലാണ് അവൈലബിളായിട്ടുള്ളത് ഓക്കെ സാർ എന്നാല് നാളെ ഉച്ചയ്ക്ക് വരാമെന്നുണ്ടെങ്കില് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചുനോക്കാം ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക് യൂ